ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് മരണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൂടുതലുള്ള സ്ഥലങ്ങളാണ് കാരണമന്താ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലും ആക്സിഡൻറ് പിന്നെ പകർച്ചവ്യാധി ഇപ്പം തന്നെ നിപ്പാ വൈറസും കാര്യങ്ങളൊക്കെ വന്നതു കൊണ്ട് നല്ലരീതിയിൽ മരണനിരക്കിപ്പോൾ കൂടുതലായിട്ടാണ് കാണുന്നത് കാരണമെന്താ വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വയറസ്സൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്കെന്തായാലും വിട്ട് പോകാൻ തന്നെ ഭയങ്കര പാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇപ്പോൾ വൈറസ് കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ വീട്ടിൽനിന്ന് പുറത്തിറങ്ങാണ്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ മരണകാര്യങ്ങളും അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറവായിട്ട് വരും പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ശിശുമരണ നിരക്കൊക്കെ നമുക്ക് ഇപ്പോൾ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി സാധിച്ചു ആദ്യമൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ശിശുമരണ നിരക്കും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു കാരണമെന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലുകളിലെ അപാകതയും കാര്യങ്ങളൊക്കെ ആണ് കൂടുതലായിട്ടും പ്രശ്നങ്ങളൊക്കെ വരുന്നത് കാരണം അവർ നല്ല രീതിയിൽ കൊച്ചിനെ നോക്കില്ല അവർ ചിലപ്പം ഇപ്പോൾ പ്രസവിക്കുന്ന ആ ടൈമീൽ തന്നെ പല രീതിയിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകും അപ്പോൾ അത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല തരത്തിലും വാക്സിനും കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ട് നമുക്കിപ്പം പ പതിനഞ്ചാം വ വയസ്സ് വരെ നമുക്ക് വാക്സിനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേ വേണ്ടി പറ്റും ഇപ്പോൾ ജനിച്ച പാടെയുള്ള കുട്ടിക്ക് വരെ വാക്സിനും കാര്യങ്ങളൊക്കെയുണ്ട് അവർക്കീ പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വാക്സിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇതൊക്കെ സർക്കാർ ചെയ്യുന്ന പദ്ധതികളൊക്കെയാണ്